ഇപ്പോൾ ഡാൻസും എൻ്റെ ലൈഫിനെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ എനർജറ്റിക്ക് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ എനർജെറ്റിക്ക് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഓട്ടോമാറ്റിക്ക് ആയിട്ടെനിക്ക് ഡാൻസ് കളിക്കാനുള്ളൊരു വൈബ് വരും അപ്പം കൂടുതലും എന്താണ് നമ്മുടെ കഴിവ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും പിന്നെ അത് കൂടാഞ്ഞിട്ട് നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട് മെൻറലി ഇപ്പോഴത്തെ കാലമെന്ന് പറയുന്നത് ഒരുപാട് ഡിപ്രെഷൻ ഇപ്പോൾ എന്താണ് സ്ട്രെസ്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാർ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് അപ്പോൾ ഈ ഡാൻസ് അങ്ങനെ പോലുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഒരു പ്ലെഷർ അല്ലെങ്കിൽ ഒരു എൻറർടെയിൻമെൻറ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു കാര്യമാണ് അപ്പോൾ അത് മൈൻഡിനെ ഒക്കെ നമുക്ക് റിലാക്സ് ആക്കാൻ പറ്റും നമുക്ക് മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കാണുന്നതുകൊണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് പോസറ്റീവ് ആയിട്ടുള്ള എനർജി മാത്രം പിന്നെ എന്താണ് ഇപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഡാൻസ് ഇപ്പം ഏറോബിക്ക് ഡാൻസും അങ്ങനെ വർക്ക് ഔട്ടും കാര്യങ്ങളും നമ്മൾ വർക്ക് ഔട്ട് എക്സർസൈസ് മാത്രമല്ല അല്ലാണ്ട് ഡാൻസ് അല്ലെങ്കിൽ എന്താണ് ഡാൻസും ഒരു വർക്ക് ഔട്ട് ആണ് അപ്പം ഏറോബിക്ക് ഇതിന് മാത്രമായിട്ട് വെയിറ്റ് ലോസ്സിന് മാത്രമായിട്ട് ഈ ഡാൻസ് ഇന്ന് ഡാൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അപ്പം അത് നമുക്ക് പോസി പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും ഇപ്പോൾ ബോഡി നന്നായിട്ട് വഴങ്ങുന്നതിനും ഒക്കെയും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ കൂടെയും അപ്പോൾ എന്താണ് എനർജി കുറച്ചുകൂടി എനർജി നമുക്ക് കിട്ടുന്നതിനും ഡാൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും